വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ ഉണ്ട് അതായത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്രത്തോളം ലളിതമാണോ അതിനേക്കാളും ഭീകരമായ രീതിയിൽ ആയിരിക്കും വാർത്തയിൽ അതിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഇപ്പം വൈകിട്ടൊക്കെ ആണെങ്കിലും രാത്രി ന്യൂസ് ചർച്ച ഉണ്ടാവുമല്ലോ പല പാർട്ടികൾ തമ്മിൽ പാർട്ടിയിലുള്ള ആൾക്കാരുകൾ തമ്മിൽ ഈ ചർച്ചക്കായിട്ട് അഞ്ചാറ് വ്യക്തികൾ ഇരിക്കുമല്ലോ അവർ അതിന് വേണ്ടതും വേണ്ടാത്തതുമായ വിധത്തിലാണ് അതിനെ പറ്റി ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു ചെറിയ കാര്യമാണെങ്കിലും അതിന് മറ്റുള്ളവരെ എതിർക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് രോഷാകുലമാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ചർച്ചയിലൊക്കെ അതിനെ പറ്റി പറയാൻ പിന്നെ വ്യാജമായ വാർത്തകൾ ഇപ്പോൾ ഒരു പ്രമുഖമായ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലോ ഉണ്ടെങ്കിൽ തന്നെ അതാണെങ്കിൽ ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ അറിയിക്കുമായിരിക്കാം പിന്നെ അതൊക്കെ സത്യമായ കാര്യമായിരിക്കും എന്നാലും ഒരു പക്ഷെ ഒരു വ്യക്തി പോലും അറിയാതെ വേറെ പലരുടെയും ശുപാർശ പ്രകാരം ചിലപ്പം മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇവർ അറിയുന്നത് അവർ അങ്ങനെ ഇതിനായിട്ട് ഒരു ഇത് കൊടുത്തിട്ടില്ലെന്നും അപ്പം അത് പലതരത്തിൽ വ്യാജ വാർത്ത ആയിരിക്കും ഇപ്പം ഞാൻ പറയട്ടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ പലരും ഇപ്പം ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊ ണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള